ഞാനൊരു ഷർട്ട് ഓഡർ ചെയ്തിരുന്നു എന്റെ അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിനു വേണ്ടി പക്ഷെ ആ ഷർട്ട് കിട്ടാനായിട്ട് കാലതാമസം വരുമെന്നുള്ളതറിഞ്ഞു അതുകൊണ്ട് എനിക്ക് തത്ക്കാലം ആ ഷർട്ട് വേണ്ട അതു നിങ്ങൾ എന്നാൽ റീഫണ്ട് ചെയ്തോളു എന്റെ പൈസ എനിക്ക് തിരിച്ച് റീഫണ്ട് ചെയ്താൽ മതി ഷർട്ട് തത്ക്കാലം ആവശ്യമില്ല അതു ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഈ